ഇത് മുത്തൂറ്റ് മുത്തൂറ്റ് ഫിനാൻസിന്റെ ഓഫീസ് അല്ലേ ഞാൻ ഒരു ഗോൾഡ് ലോൺ എടുക്കുന്നതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു

അഗ്രിക്കൾച്ചറൽ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കാരണം എനിക്ക് ചെറിയൊരു കൃഷി പോലത്തെ ഒരു ഇതുണ്ട് ആ അങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത് ആ സ്ഥലം ഉണ്ട് സ്ഥലം ഉണ്ട് കൃഷി ചെയ്യുന്ന ഭൂമി ഉണ്ട് ഒരു അമ്പത് സെൻറോളം സ്ഥലം ഉണ്ട്

ആ ശരി മാഡം മാം എന്റെ കയ്യിലിപ്പോൾ ഒരു പത്ത് പവനാണ് ഇവിടെ ഗോൾഡ് ലോൺ എടുക്കാൻ വേണ്ടി കയ്യിലുള്ളത് അപ്പോൾ ഈ പത്ത് പവന് എത്രയായിരിക്കും കിട്ടുന്നത് ആ ശരി ആ അങ്ങനെ ഒന്നും ഇല്ല മാഡം അങ്ങനെ ഒന്നും ഇല്ല മാം മാഡം പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് നമുക്ക് ഇതിന്റെ ഈ തിരിച്ചടവ് എത്രയാണ് വരുന്നത് ആ മതി മാഡം എപ്പം ആ എപ്പം മീറ്റ് ചെയ്യാൻ പറ്റും നാളെ പറ്റുമോ മാഡം ഓക്കെ എന്നാൽ മാഡം ഒരു ഉച്ചയ്ക്കൊരു രണ്ട് മണി കഴിഞ്ഞിട്ട് വന്നാൽ മാഡം ഫ്രീ ആയിരിക്കുമോ ആ ആ നാളെയാണ് മാഡം ആ ശരി മെ ആ ശരി മാഡം അപ്പം എന്തായാലും നാളെ കാണാം അപ്പം നമുക്ക്